ഈ ഗ്രാമത്തിലെ ആളുകൾ വായ്പയെടുക്കുന്നത് സാധാരണമാണ് ആവശ്യങ്ങൾക്കായിട്ടാണ് അവർ വായ്പയെടുക്കുന്നത് ഇതിനാൽ ഇങ്ങനെ വായ്പ കൊടുക്കുന്നവരെ അവർ സമീപിക്കുകയാണ് ചെയ്യുക പിന്നെ ഈ ചിലവരുണ്ട് അതായത് മര്യാദയ്ക്ക് ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവർ അവർ അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി അവർ ലോൺ എടുക്കും അങ്ങനെ പൈസ ഒക്കെ എടുത്ത് ഇങ്ങനെ പൈസ മറിച്ചും അവരുടെ അടുത്ത് നിന്ന് വായ്പയെടുത്തും ഒക്കെ അടക്കും പിന്നെ അവസാനം ഇവർ എന്തെങ്കിലും പണിക്ക് പോയിട്ട് വേണം ഇതൊക്കെ വീട്ടാൻ അപ്പം ഇത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചിലവർക്കൊക്കെ ഇപ്പോൾ ലോൺ എടുത്ത് കൃഷി എടുക്കുന്നവരുണ്ട് ഈ പുഴ സൈഡിലൊക്കെ കൃഷി ചെയ്യുന്നവർ ഈ മഴയും വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ കൃഷി പരമാവധി നശിച്ചു പോവും അപ്പോൾ ഇവർക്ക് ഈ തിരിച്ച് ലോൺ അടയ്ക്കാനൊന്നും സാധിക്കാൻ പറ്റാതെ ഇവരിങ്ങനെ സങ്കടത്തോടെയും ഒരുപാട് വിഷമങ്ങൾ ആലോചിച്ചും ഒക്കെ സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദോഷഫലങ്ങൾ ഇത് ഇതൊന്നും ഒട്ടും നല്ലതല്ല പക്ഷെ നമ്മുടെ ജീവിതഭാഗമാണ് ഒന്നും പറയാൻ കഴിയില്ല